എൻ്റെ ഞാൻ സന്ദർശിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉള്ളത് എനിക്ക് ഇന്ത്യ വിട്ട് പുറത്തു പോകാൻ നല്ല ആഗ്രഹമാണ് അത് പുറത്തെല്ലാം നമുക്ക് മറ്റുള്ള നാടുകളിലേക്ക് പോയി അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ആളുക്കാരെയും പരിചയപ്പെടാനും അവരുടെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പുറത്ത് പോയി അവിടെ കുറച്ചുനാൾ എൻ്റെ മാസ്റ്റേഴ്സ് ഒക്കെ പുറത്തുപോയി ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് സന്ദർശിക്കണം എന്ന രീതിയിലാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ സന്ദർശിക്കാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് കുറെ സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹമുണ്ട് എനിക്ക് ഈ ഇന്ന ഒരു സ്ഥലം എന്നല്ല എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം കുറേ സ്ഥലങ്ങൾ പോയി കുറേ ആൾക്കാരെ കണ്ട് കുറേ സ്ഥലങ്ങൾ പോകണം അതാണ് എൻ്റെ ആഗ്രഹം എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം എനിക്ക് കുറേ സ്ഥലങ്ങളിൽ പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ എനിക്ക് ഞാൻ പുറത്തു പോയിട്ട് മാസ്റ്റേഴ്സ് ചെയ്യണം ഒറ്റയ്ക്ക് ജീവിക്കണം കുറേ ആൾക്കാരുടെ ഇടയിൽ നല്ല രീതിയിൽ ജീവിക്കണം കുറെ സ്ഥലങ്ങൾ കാണണം അങ്ങനെയുള്ള ചില സമയത്ത് നല്ല നല്ല റിലേഷൻഷിപ്പ്സ് ഉണ്ടാക്കണം അങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹം എനിക്കിഷ്ടമുള്ള സ്ഥലങ്ങൾ ഒക്കെ പറയുകയാണെങ്കിൽ ന്യൂയോർക്ക് പേരിസ് വിയറ്റ്നാം ജപ്പാൻ ചൈന ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇന്ത്യയിൽ ആണെങ്കിൽ ഇന്ത്യയിൽ ആണെങ്കിൽ കേരളം കേരളം കേരളത്തിൽ തന്നെ കുറേയുണ്ട് കാണാൻ കേരളത്തിലെ എൻ്റെ ജില്ല പാലക്കാടിൻ്റെ എനിക്ക് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് എനിക്ക് ബീച്ചുകളിൽ പോകണം ഇന്ന സ്ഥലം എന്നല്ല എനിക്ക് ഓരോ സ്ഥലങ്ങളിലും ഉപരി ഒരു പ്ലേസ് എന്നതിലുപരി അവിടുത്തെ സവിശേഷതകൾ അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം അല്ലെങ്കിൽ നല്ലോണം എന്താ പറയുക പ്രകൃതിരമണീയമായ സ്ഥലം ഹൈകിങ് ചെയ്യാൻ പറ്റുന്ന ട്രക്കിംഗ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാൻ എനിക്കിഷ്ടമാണ് ബീച്ചുകൾ കൂടുതലുള്ള സ്ഥലം ഏതാണോ അവിടെ പോകാൻ അങ്ങനെ പല പല സ്ഥലങ്ങളിലോട്ട് പോയി നോക്കാനും കുറേ ആൾക്കാരെ പരിചയപ്പെടാനും അവിടുത്തെ അവിടുത്തെ മെയിൻ ഫുഡ് ട്രൈ ചെയ്തു നോക്കാൻ ഒക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്